ഞാനെൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചതും പിന്നെ കുറച്ച് കുറെ ബുക്കുകളിൽ നിന്നും വായിച്ചിട്ട് എനിക്ക് കുറച്ച് രാജാക്കന്മാരെ പറ്റി കുറച്ച് അറിവും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിലൊര് രാജാവാണ് ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിലെ രാജാവായിരുന്നു അദ്ദേഹം വളരെ നല്ലൊരു രാജാവ് തന്നെയായിരുന്നു പിന്നെ അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യൻ്റെ പേര് മുംതാസ് എന്നായിരുന്നു അവർ ഭയങ്കര സ്നേഹത്തിലൊക്കായിരുന്നു അങ്ങനെ മുംതാസ് മരിച്ചു പോവുകയും മുംതാസിൻ്റെ ഓർമ്മക്കായി അദ്ദേഹം താജ്മഹൽ പണിയുകയും ചെയ്തു താജ്മഹൽ എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രണയത്തിൻ്റെ ഒരു പര്യായം തന്നെയാണ് അങ്ങോട്ടേക്ക് വളരെ അധികം സഞ്ചാരികളും എല്ലാ ദിവസവും വന്നു പോകുന്നൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഇത് ലോകത്തിലെ ഒരു അത്ഭൂതം തന്നെയാണ് ഈ താജ്മഹൽ എന്ന് പറയുമ്പോൾ അത് പണി കഴിപ്പിച്ചത് ഷാജഹാൻ ചക്രവർത്തിയാണ് അദ്ദേഹം മരിച്ചിട്ട് അടക്കിയതും അവിടെ തന്നെയാണ് സ്നേഹത്തിൻ്റെ ഒരു പര്യായമായാണ് താജ്മഹൽ ഇന്നും നിലകൊള്ളുന്നത്